യോഗ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് വഴക്കവും ശക്തിയും കിട്ടുമെന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾക്ക് ഇന്നൊരു ദിവസം ചെയ്തതുകൊണ്ട് മാത്രം നമുക്കൊരു വഴക്കമോ ശക്തിയോ ഒന്നും ഒരിക്കലും കിട്ടുന്നതല്ല നമ്മൾ യോഗ ദൈനംദിനമായി എന്നും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു വഴക്കത്തിലേയ്ക്കും ശക്തിയിലേയ്ക്കും നമ്മൾ എത്തിച്ചേരുകയുള്ളു നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ വളരെ ലഘുവായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്തിട്ട് നമ്മൾ ഒന്ന് ശരീരത്തെേയും മനസ്സിനേയും ഒക്കെ ഒന്ന് വാമപ്പൊക്കെ ചെയ്ത് പിന്നീട് നമ്മൾ ലഘുവായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് അതിനുള്ള അടുത്ത ആ ആസനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു നമ്മളെപ്പോഴും ഒരു വ്യായാമം തുടങ്ങുന്നതിനു മുമ്പിട്ടു നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നല്ലൊരു വാമപ്പ് കൊടുക്കുക നമ്മുടെ ശരീരത്തിന് അതിനു ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു എക്സർസൈസ് എന്നു പറയുന്നത് സ്ട്രെച്ചിങ്ങ് എക്സർസൈസാണ് സ്ട്രെച്ചിങ്ങ് എക്സർസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തെ ഒന്ന് നിയന്ത്രണത്തിലാക്കാനും അതുപോലെത്തന്നെ മസിൽസിനും എല്ലിൻ്റെയും എല്ലാം നല്ലൊരു പ്രവർത്തനം ചെയ്തു തരാനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കി കിട്ടാനും ഒക്കെ സ്ട്രെച്ചിങ്ങ് എക്സർസൈസ് നമ്മളെ സഹായിക്കുന്നു അതു മാത്രമല്ല നമ്മൾ എന്ത് ആസനം ചെയ്യുന്നതിന് മുമ്പിട്ടും ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഗുണം മാത്രമേ നൽകുന്നുള്ളൂ നമ്മൾക്ക് ശരീരം വഴക്കം വരാൻ വേണ്ടി നമ്മൾ രണ്ട് മൂന്ന് ആസനങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതായത് പാദം വൃക്ഷാസന അങ്ങനെയുള്ള ഒന്നു രണ്ട് ആസനങ്ങൾ നമ്മൾ നമ്മുടെ ദൈനംദിനത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മളുദ്ദേശിക്കുന്ന രീതിയിൽ വഴക്കമുള്ളതും അതുപോലെതന്നെ നല്ല ഒത്ത ഒരു ശരീരത്തിലേക്ക് നമുക്ക് എത്താനും സാധിക്കും നമ്മളെപ്പോഴും യോഗ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്